ഓൺലൈൻ വിദ്യാഭ്യാസവും പരിശീലനവും എന്താ കുട്ടികളെ കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല കാരണം ഓൺലൈനായിട്ട് ക്ലാസ്സ് എടുത്തത് കൊറോണ കോവിഡ് ടൈം കോവിഡ് ടൈമിലാണ് അതായത് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ഈ കോവിഡൊക്കെ വരുന്നത് അപ്പോൾ ഞാനിന്നുവരെ ഒരു ഓൺലൈൻ ക്ലാസ്സും കൂടിയിട്ടില്ല ടീച്ചർമാർ ക്ലാസ്സ് വെച്ചു ഓക്കെ വെച്ചോട്ടെ ആ ഒരു മൈൻഡ് അതായത് കൂടുന്ന പിള്ളേർ ഞാനിതുവരെ കൂടിയിട്ടില്ല ഒറ്റ ക്ലാസ്സ് ഒറ്റ ഓൺലൈൻ ക്ലാസ്സും ഇന്നേവരെ കൂടയിട്ടില്ല കൂടിയിട്ടുള്ള പിള്ളേർ ഇങ്ങനെ കുടിയിട്ടെന്നു വെച്ചാൽ ലിങ്കിൽ ക്ലിക്കുചെയ്ത് ക്ലാസ്സിൽക്കയറും ക്ലാസ്സിൽ കയറിക്കഴിഞ്ഞ് അവർ വേറെ പല പല കാര്യങ്ങളിൽ ഏർപ്പെടാനാണ് പോകുന്നത് അവസാനം അറ്റൻഡൻസ് വിളിക്കുമ്പോൾ മാത്രം അവരോടി കയറിവരും ആ ഒരു സംഭവമാണ് നിലവിൽ നിലവിലല്ല ഓൺലൈൻ ക്ലാസ്സൊക്കെ എന്നു വെച്ചിട്ടുണ്ടോ അന്നെല്ലാം ഉണ്ടായിട്ടുള്ളത് പിന്നെന്താ ഓൺലൈനായിട്ടുള്ള പരിശീലനം പരിശീലനം ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽക്കൂടി തന്നെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിന്നത് എന്താ അതായത് കുട്ടികൾക്ക് ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ മടിയാണ് ആ ഒരവസ്ഥയിൽ അവരുടെ കയ്യിൽ ഫോണും കൊടുത്ത് വീട്ടിലിരുന്ന് പഠിച്ചോ എന്നു പറയുമ്പോൾ അവർ കേൾക്കില്ല അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങൾ അവർ ആ വഴിക്കങ്ങ് ചെയ്യും അതുകൊണ്ട് പഠിത്തം ഓൺലൈനിൽക്കൂടി നടക്കുകയില്ല പിന്നെ പരിശീലനത്തിൻ്റെ കാര്യം പറയുമ്പോൾ താല്പര്യമുള്ള പിള്ളേർക്ക് പരിശീലനം ഓൺലൈനിൽക്കൂടി ആണെങ്കിലും ഓഫ്ലൈനിക്കൂടി ആണെങ്കിലും നടക്കും പക്ഷേ താല്പര്യം ഇല്ലാത്ത പിള്ളേർ ഇതേപോലെ തന്നെ ക്ലാസ്സ് എങ്ങനെയാണോ കൂടുന്നത് അതുപോലെതന്നെ ഇങ്ങനത്തെ ഓരോ പരിശീലനം ആ ഒരു രീതിയ്ക്കേ കാണത്തുള്ളൂ അതായത് ക്ലാസ്സിൽ കൂടുന്നു ക്ലാസ്സ് കഴിയുന്നതിനു തൊട്ടുമുന്നെ വരുന്നു എന്നിട്ടെന്താ അറ്റൻഡൻസ് വിളിക്കുമ്പം അവർ പ്രസൻ്റ് പറയുന്നു ക്ലാസ്സ് കട്ടാക്കുന്നു ഈ ഒരു സെയിം സിറ്റുവേഷനാണ് ക്ലാസ്സിലാണെങ്കിലും പരിശീലനത്തിലാണെങ്കിലും നടപ്പായിട്ടുള്ളു